ഗ്രാമീണ മേഖലയിലെ വിദ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താനായിട്ട് സർക്കാര് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് ചെയ്തിട്ടുണ്ട് കാരണം ഗവൺമെൻ്റ് തലത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഗ്രാമീണ മേഖലയില് ലഭ്യമാണ് ഇപ്പം ഒന്നാം ക്ലാസ് തൊട്ട് മുതല് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് സൗജന്യമാണ് പുസ്തകങ്ങള് അതുപോലെ തന്നെ അവർക്കുള്ള ഉച്ചക്കഞ്ഞി അങ്ങനെയൊക്കെ അവർക്ക് നിർബന്ധിതവും ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പം ഗ്രാമീണ മേഖലയില് കൊടുക്കുന്നത് പിന്നെ സ്കൂളിൽ നിന്നാണെങ്കിലും അഞ്ച് അരി വീതം അവർക്ക് ഒരു മാസത്തിലോ അല്ലെങ്കില് ഓണത്തിൻ്റെ സമയത്തോ ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഗ്രാമീണ മേഖലയില് വിദ്യാഭ്യാസം വർദ്ധിച്ച് കൊണ്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തരത്തിൽ എന്ന ആർക്കും വിദ്യാഭ്യാസം ഇല്ലാ ഇല്ലാത്തതിൻ്റെ ഒരിത് വരുന്നില്ല ഭൂരിഭാഗം കുട്ടികളെ തന്നെ ഇപ്പോഴ് പഠിക്കാനായിട്ടൊക്കെ വിടുന്നുണ്ട് പിന്നെ ഗ്രാമപ്രദേശങ്ങളില് ചില കുട്ടികളെ സ്കൂളിൽ വെയ്ക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പം

ഇപ്പോൾ സാധാരണ പി പ്പെട്ട കാർന്നോന്മാരൊക്കെയാണെങ്കില് അവര് ഒരു ദിവസത്തെ ആഹാരം അല്ലെങ്കില് ഒരു ദിവസം ഒരു അരി മേടിക്കാൻ തന്നെ കൂലി പണിക്ക് പോകേണ്ട ഒരവസ്ഥയാണ് അപ്പം കുട്ടികള് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്കുള്ള ബാഗ് പുസ്തകങ്ങള് പിന്നെ അങ്ങനെ യൂണിഫോമിനുള്ള ഇത് പക്ഷേ ഗവൺമെൻ്റ് സ്ഥാപനങ്ങളില് കുട്ടികൾക്ക് യൂണിഫോം അങ്ങനെയുള്ളതൊക്കെ ഇപ്പം ഫ്രീയായിട്ടാണ് നടപ്പിലാക്കി വരുന്നത് ഒരുപക്ഷേ കുട്ടികൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാവാം അല്ലെങ്കില് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിടാനായിട്ടുള്ള താല്പര്യം ഇല്ലാത്തതൊക്കെ കൊണ്ടാവാം കുട്ടികളെ കൂടുതലും സ്കൂളിലേക്ക് അയക്കാത്തത് പിന്നെ ചെറിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കുട്ടികള് ചിലപ്പോൾ വേറെ എന്തെങ്കിലും തൊഴിലിന് പോയി അങ്ങനെ ഏതെങ്കിലും വിധത്തില് കുടുംബത്തെ സഹായിക്കാമെന്നുള്ള ലക്ഷ്യത്തോട് കൂടി ആയിരിക്കണം അല്ലാതെ ഭൂരിഭാഗം കുട്ടികളും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഇന്നത്തെ സർക്കാര് ഒരുക്കുന്നുണ്ട്